എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും പറഞ്ഞിട്ടുണ്ട് നീ വളർത്തുന്നത് പോലെയൊന്നും അല്ലെടീ ഞങ്ങളുടെ ഞങ്ങൾ ആടിനെയും പട്ടിയേയുമൊക്കെ വളർത്തിക്കൊണ്ടിരുന്നത് അത് പന പനങ്കൈ പനങ്ങടെ ഇത് ഉപയോഗിച്ച് ഉള്ള ആട്ടിൻ കൂടൊക്കെയായിരുന്നു ഞങ്ങളുടേത് അതുകൊണ്ട് അതിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഒരു അസുഖവും വരത്തില്ല തണുപ്പുമില്ല നീയൊക്കെ ഉള്ള ഇത് സിമൻറ്റുവൊക്കെ വാർത്ത് വലിയ ഹൈട്ടെക്ക് കൂടും നിർമിച്ച് വച്ചിരിക്കുകയാ അതുകൊണ്ടാടി നിൻ്റെ ആടിനൊന്നും പാലില്ലാത്തത് ഞങ്ങളുടേതൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് പാല് തരുമായിരുന്നു നല്ല ഒന്നാംതരം കൂടായിരുന്നു ഞങ്ങളുടേത് നല്ല മുള പന പനയുടെയും കഴുങ്ങിൻ്റെയുമൊക്കെ ഇത് ഉപയോഗിച്ചായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതിൽ കിടക്കുമ്പം അത്ങ്ങൾക്ക് വാതവും ഇല്ല കൂതവും ഇല്ല നിൻ്റെതിനൊക്കെ എപ്പഴും അസുഖം വരുന്നത് അത് കൊണ്ടാ അതുകൊണ്ട് ഞങ്ങള് അതുപോലെത്തന്നെ കാടിയും പുല്ലും ഒക്കെ കൊടുത്താ വളർത്തിക്കോ നിങ്ങൾ വലിയ പിന്നെ ഹോർമോൺ ഉള്ള സാനങ്ങളും പിന്ന കുടികളും ഒക്കെ വലിയ വലിയ വലിയ പൈസ മുടക്കി നിങ്ങൾ തീറ്റി കൊടുക്കുക പട്ടിക്കാണെങ്കിലും ഞങ്ങളൊക്കെ ഉള്ള ചോറും ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ ബാക്കി മിച്ചമൊക്കെയാ കൊടുക്കൂ ഇത് വേറെ സ്പെഷ്യൽ ആയിട്ട് വേടിച്ച് വച്ച് കൊടുക്കുവാ പട്ടിത്തീറ്റി പട്ടി ബിസ്കറ്റ് എന്തെല്ലാമാ നിങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അത് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിങ്ങളൊക്കെ വല്ലവരെയും കണ്ടാൽ കടിക്കുകയോ വല്ലതും ചെയ്തു നിൻറ്റേതൊക്കെ ഇങ്ങനെ നിന്ന് കുരയ്ക്കുന്നതല്ലാതെ മനുഷ്യൻ്റെ പുറത്തോട്ട് വിടാൻ ഒക്കുവോ വലിയ ആന പോലെ വളർത്തി വച്ചിരിക്കുകയാ എന്നാ പ്രയോജനമാ എന്ന് പറഞ്ഞ് ഞങ്ങളെ വഴക്ക് പറയുകയാ വഴക്ക് പറയും പക്ഷേ നമുക്ക് അങ്ങനെയൊക്കെ വച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൂട് വൃത്തിയാക്കാനാക്ക വലിയ പാടല്ലേ അത് അവിടെ ഇവിടെയൊക്കെ തൂറി വെക്കുകയും ഒക്കെ ചെയ്ത് ഇതാവുമ്പം കൂട്ടിൽ തന്നെ എല്ലാം അവർക്ക് സെറ്റിക് ടാങ്ക് ഒക്കെ ഉണ്ടാക്കി വച്ച് അതിൻ്റെ അകത്തോട്ട് കഴുകി കളയ ഹോസ് ഉപയോഗിച്ച് കഴുകി വിട്ടാൽ മതി അത് അതിലേക്കൂടെ പോയിക്കൊള്ളും ആടിനെയാണെങ്കിലും പിന്നെ കുളിപ്പിക്കുന്ന കൂട്ടത്തിൽ അവിടെയെല്ലാം കഴുകി വൃത്തിയാക്കി മറ്റേത് ഇതിൻ്റെ പലകയുടെ ഇടയ്ക്ക് എല്ലാം അപ്പടിയേ കാട്ടവും വീണ് മൂത്രവും വീണ് എല്ലാം അളിഞ്ഞും പൊളിഞ്ഞും ദേഹോല്ലാം എപ്പഴും ചീത്തയായിട്ടിരിക്കും ഇത് നമ്മളേതിന് നമുക്ക് കൂട്ടത്തിൽ കൊണ്ട് നടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇങ്ങനെയൊക്കെയാണ് അവരിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഉപദേശങ്ങളൊക്കെ നല്ലതാ ശരിയാ ഇതിപ്പം കാൽസ്യം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ കാൽസ്യം കുത്തി വെക്കുക പണ്ടൊന്നും ഞങ്ങൾ ഒന്നും ഇങ്ങനെ കുത്തിവെപ്പും നടത്തിയിട്ടില്ല ഒന്നും നടത്തിയിട്ടില്ല അതിനെ കൂട്ടത്തിൽ കൊണ്ട് വിടും അതിന് പിന്നെ അത് കഴിയുമ്പം അത് അഞ്ചാം മാസമാവുമ്പം അത് പ്രസവിക്കും ഇത് നിൻ്റെതൊക്കെ ഇങ്ങനെ പിന്നെ വലിയ കൂടും ഉണ്ടാക്കി വലിയ കാര്യമായിട്ടൊക്കെ വളർത്തുന്നത് കൊണ്ടാ ഇങ്ങനെയൊക്കെ വരുന്നത് ഞങ്ങളൊക്കെ എന്തു മാത്രം പാല് കറന്ന് കുടിച്ചതാ ഇതിൻ്റെ ആ പാല് കുടിച്ചാൽ തന്നെ അതിൻ്റെ ആരോഗ്യമാടീ നിൻ്റെ അമ്മയ്ക്കും അപ്പനുമൊക്കെ ഉള്ളത് നീ നിൻ്റെയൊക്കെ പിള്ളേർക്ക് നീയൊക്കെ ടിൻ ഫുഡും കൊടുത്തുകൊണ്ടുള്ള വളർത്തുന്നതിൻ്റെയാ നിൻ്റെ പിള്ളേർക്കൊക്കെ എന്നും കുന്നും അസുഖം ഉണ്ടാകുന്നത് ഞങ്ങൾ അങ്ങനെ ആ പാല് കുടിച്ചാൽ ഇത് നിങ്ങൾ പാല് ഉണ്ടാകാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് കൊണ്ടാ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അത് ചെയ്താൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ പഴയ കാലത്തെ രീതികൾ തന്നെ തുടരുന്നതാ നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ വളത്തുന്നതാ പിന്നെ ഇതെല്ലാം ഒരു ഷോയാ അവരുടെ പത്രാസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാ എന്നാ എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും പറയുന്നത്